മുട്ട ആണെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യും അത് ഇവിടെ വീട്ടാവശ്യങ്ങൾക്ക് ആണെങ്കിലും കൊടുക്കാനൊക്കെ ആണെങ്കിലും സാധിക്കും മുട്ട ആണെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യും അത് ഇവിടെ വീട്ടാവശ്യങ്ങൾക്കാണേലും കൊടുക്കാനൊക്കെ ആണെങ്കിലും സാധിക്കും നല്ല അൻ കോഴികളെ ആവശ്യത്തിന് ആണെങ്കിലും ഉപയോഗിക്കാനാണെങ്കിലും നമക്ക് കറി വെക്കാൻ ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ സാധിക്കും നല്ല രീതിയിൽ അത് പ്രയോജനം ചെയ്യുന്നതാണ് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ഇടയിലായി പനിയൊക്കെ വന്നപ്പോഴത്തേന് ഒത്തിരി നഷ്ടം വന്ന് പിന്നെ അത് ചത്ത് പോകുകയൊക്കെ ചെയ്തു പിന്നെ അതൊരു നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിപ്പോയി എന്നാലും നമ്മള് മേടിക്കുകയും മേടിച്ചതിന് അനുസരിച്ച് നേട്ടം കൈവരിക്കുകയും ചെയ്യുവായിരുന്നു

മുട്ട ആണെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനൊക്കെ ആണേലും സാധിക്കും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാണെങ്കിലും വിൽക്കുകയൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്യാന് സാധിക്കും